ഞങ്ങളുടെ പ്രദേശത്ത് അമ്പലങ്ങളും പള്ളികളും ഒക്കെ ഉത്സവങ്ങളും ആഘോഷങ്ങളും നടക്കാറുണ്ട് അവിടെയൊക്കെ കച്ചവടക്കാർ ഉണ്ട് വളകൾ കച്ചവടക്കാർ വളക്കച്ചവടക്കാർ കപ്പലണ്ടിക്കച്ചവടക്കാർ മിഠായിക്കച്ചവടക്കാർ ചായ കച്ചവടക്കാർ അങ്ങനെ പല വിധത്തിലുള്ള കച്ചവടക്കാർ ഞങ്ങളുടെ പള്ളികളിൽ വരാറുണ്ട് അതോടൊപ്പം തന്നെ കെ എൽ എംമിലുള്ള വിദ്യാർത്ഥികളും കെ എൽ എംമിലെ ആൾക്കാരും മറ്റേ ആൾക്കാരുടെ കച്ചവടക്കാർ ഉണ്ടായിരിക്കും എല്ലാവരും കാണും കച്ചവടക്കാരിലൊക്കെ പള്ളിയുടെ അഭിമുഖത്തിൽ കച്ചവടം ചെയ്യന്നവർക്കൊക്കെ ഒരു പിരിവ് പള്ളിക്ക് തന്നെ കൊടുക്കണമെന്ന് നേരത്തെ തന്നെ പറയുകയുണ്ടായി ചില ആൾക്കാരൊക്കെ അവരുടെ അവർ സംഭാവനകളായി ചില ആൾക്കാർക്ക് വീടു പണിയുന്നതിനും പാവപ്പെട്ട കുട്ടികൾക്ക് ബുക്കുകൾ വാങ്ങിക്കുന്നതിനും സഹായിക്കാറുണ്ട് പാവപ്പെട്ട ദാരിദ്ര്യത്തിൽ കഴിയുന്ന പല ജനങ്ങളെയും അവരുടെ തുച്ഛമായ വരുമാനത്തിൽ നിന്ന് അവർ സഹായിക്കാറുണ്ട് പള്ളി കോമ്പൗണ്ടിലും അമ്പലം കോംബൗണ്ടിലും ഒക്കെ കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് പള്ളിയിലേക്കോ അല്ല അമ്പലങ്ങളിലേക്കോ തന്നെ ഒരു തുച്ഛമായ പൈസ അതായത് വാടക കൊടുത്തുവേണം അവർ അവിടെ കച്ചവടം ചെയ്യാൻ അപ്പോൾ അവർക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്നും വാടക അപ്പോൾ അവർ പള്ളിക്ക് കൊടുക്കണം അതോടൊപ്പം തന്നെ അവർ സാമ്പത്തികമായും പല പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരാണ് അവർക്ക് അവരുടെ പരിധിയിൽ നിന്നുകൊണ്ട് അവർ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങളും അവർ ചെയ്തു കൊടുക്കാറുമുണ്ട് പലതരം പാവപ്പെട്ട കുട്ടികൾക്ക് അത് സ്കൂളിൽ പോകുവാൻ നിവൃത്തിയില്ലാത്ത കുട്ടികൾക്ക് ബുക്കും പുസ്തകങ്ങളും വാങ്ങിക്കാൻ അവർ സഹായിക്കാറുണ്ട് അതുപോലെ പാവപ്പെട്ട വീടുകളിൽ മാതാപിതാക്കൾ മാത്രമോ അല്ലെങ്കിൽ അമ്മമാരോ അച്ഛന്മാരോ ഒറ്റയ്ക്ക് കഴിയുന്ന വീടുകൾ അനേഷിച്ച് കണ്ടെത്തി അവർക്ക് വേണ്ടുന്ന ആഹാരങ്ങൾ കൊടുക്കാനുള്ള പൈസകളും അല്ലെങ്കിൽ മറ്റ് സാമഗ്രികളോ അവർ വാങ്ങിച്ച് കൊടുക്കാറുണ്ട് അങ്ങനെ പല കാര്യങ്ങളും അവർ ചെയ്യാറുണ്ട് അങ്ങനെ അവർ കച്ചവടം കഴിഞ്ഞ് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്നും അവർ സഹായിക്കാൻ കഴിയുന്ന വിധത്തിലൊക്കെ അവർ സഹായിക്കാറുണ്ട് പിന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നത് ഈ കച്ചവടത്തിൽ നിന്നുതന്നെയാണല്ലോ ആയതിനാൽ കൂടുതൽ വരുമാനം കൊടുത്ത് എല്ലാവരെയും സഹായിക്കാൻ അവർക്ക് കഴിയത്തില്ല എങ്കിൽപ്പോലും അവരുടെ കയ്യിൽ കിട്ടുന്ന വരുമാനത്തിൽ നിന്നും അവർ മറ്റുള്ള പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കാനും പള്ളിക്ക് ആവശ്യമായ കാര്യങ്ങൾ സാധിക്കാനും അമ്പലത്തിലെ ആവശ്യങ്ങൾ സാധിക്കാനും ഒക്കെ അവർ അവർ മുൻകൈയെടുത്ത് പ്രവർത്തിക്കാറുണ്ട് പള്ളിയിലെ കാര്യങ്ങൾ നടത്താൻവേണ്ടി അവർ മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിരിന്ന കാര്യങ്ങൾ എല്ലാം തന്നെ അവർ മുൻകൂട്ടി ചെയ്യാറുണ്ട് അങ്ങനെയാണ് ചെറുകിട കച്ചവടക്കാർ ചെയ്യുന്നത് ചെറുകിട കച്ചവടക്കാർ എന്നു പറഞ്ഞാൽ പാവപ്പെട്ട രീതിയിലുള്ള ആൾക്കാരാണ് അവരേയുംകൊണ്ട് കഴിയാവുന്ന രീതിയിലെല്ലാം തന്നെ അവർ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെ ചെയ്തു പോകുന്നു അങ്ങനെ ആ കച്ചവടത്തിൽ നിന്നും കിട്ടുന്ന ലാഭമുതൽ തുഛമായും കിട്ടുന്ന ലാഭംകൊണ്ടാണ് അവരുടെ വീടുകൾ പോലും അവർ കഴിയുന്നത് അതിൽ നിന്നു കിട്ടുന്ന തുച്ഛമായ ലാഭം കൊണ്ട് അവർ എല്ലാവരേയും സഹായിക്കുന്നുണ്ട് അങ്ങനെ സഹായിക്കുന്നതുകൊണ്ടാണ് അവരുടെ കച്ചവടം ഇന്നും നിലനിന്ന് പോകുന്നത് ആ കച്ചവടത്തിൽ നിന്നും കിട്ടുന്ന എല്ലാ ലാഭങ്ങളും ഒരാളോടൊപ്പം തന്നെ മറ്റുള്ളവരെ സഹായിക്കാനും വിനിയോഗിക്കുന്നു വിനിയോഗിക്കുന്നതുമൂലം അവർക്ക് എന്നും ഭൂമിയിൽ നിലനിൽപ്പ് ഉണ്ടായിരിക്കുകയും ചെയ്യും